ഹലോ ഗുഡ് മോർണിംഗ് റെസ്റ്റോറന്റ് അല്ലെ ഇല്ല ടേബിൾ ബുക്ക് ചെയ്യാൻവേണ്ടി വിളിച്ചതായിരുന്നു അതെ നാല് പേര് വരുന്ന ഒറ്റ ടേബിൾ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ എന്ത എന്തൊക്കെയാ ഉള്ളെ എന്താ സ്പെഷ്യൽ ഓഫറുകള് ഓക്കെ അതിനൊക്കെ എത്രയാണ് റേറ്റ് വരുന്നത് നമ്മള് കുടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുവൊ അഡ്വാൻസ് എന്തെങ്കിലും തരേണ്ടി വരുവൊ പിന്നെ അവിടെ താമസ സൗകര്യം ഒക്കെ ഉണ്ടോ നമുക്ക് രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതീല് ഓക്കെ ഒരു ടേബിൾ ബുക്ക് ചെയ്തോളു എന്തായാലും ഓക്കെ നന്ദി